സാധാരണ മനുഷ്യർ എല്ലാവരേം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മലബന്ധം യഥാർത്ഥ ശോചന മനുഷ്യന് കിട്ടിയില്ല എങ്കിൽ ഓരോ മനുഷ്യർക്കും അതിൻ്റെതായ അസ്വസ്തതകൾ ദിവസവും അനുഭവപ്പെടും മനുഷ്യന്റെ പ്രധാന പ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഗ്യാസ് ട്രബിളും മലബന്ധവും ഒഴിവാക്കാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിൽ അല്ല പ്രശ്നം ഓരോ സമയത്തും കഴിക്കുന്ന ആ സമയത്ത് അൽപ്പം എങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ വായുകോപം മലബന്ധം ഗ്യാസ് ട്രബിള് ഇതെല്ലാം ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പം പണ്ടക്കെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വില്വാദി ഗുളിക എന്ന് ഒക്കെ കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ വയറിലെ പ്രശ്നങ്ങൾ മാറാൻ ഇഞ്ചി നീര് ഇതൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഇന്ന് മാറി ഇന്ന് അലോപ്പതി മരുന്നുകളാണ് അധികമായിട്ടും ജെലൂസില് പോലുള്ള മരുന്നുകളെക്കെ ആണ് അധികം ആയിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്നാലിതിനേക്കാളും ഏറ്റവും നല്ല കാര്യങ്ങൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂട്തലായി ഉപയോഗിക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മലബന്ധം പൂർണ്ണമായും ഒരു ഒഴിവാക്കാം എന്നുള്ള വസ്തുത എല്ലാവരും അംഗീകരിക്കണം